ചിത്രരചന പോലുള്ള കലകൾ കുട്ടികൾക്ക് ആരംഭിക്കാനുള്ള വയസ്സ് എൻറ്റൊരഭിപ്രായത്ത് ആറ് വയസ്സിന് ശേഷമാണ് ആ ഒരു സമയത്താണ് കുട്ടികൾക്ക് ഓരോ കലകൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രായം എത്തി എത്തുന്നത് മാനസിക ആരോഗ്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു പ്രായത്തിലാണ് കുറച്ചും കൂടി നേടിയെടുക്കുന്നത് അവര് അത്കൊണ്ട് തന്നെ അവര് ഒരാറു വയസ്സിന് ശേഷം അല്ലെ ഒരഞ്ച് വയസ്സിന് ശേഷമാണ് കുട്ടികൾ ഈ ചിത്രരചന മ പോലുള്ള കലകൾ അഭ്യസിക്കേണ്ടത് അന്നാൽ മാത്രമേ അവർക്ക് നമ്മളിപ്പോൾ ഒരാറ് വയസ്സ് എത്തിയാലാണ് കുട്ടികളെ നമ്മള് ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കുക എന്നാൽ മാത്രമേ അവരുടെ കയ്യും ക കയ്യും ഒക്കെ മനസ്സിനൊത്ത് ചലിക്കുന്നുള്ളു ആ ഒര് സമയത്ത് തന്നെയാണ് നമ്മൾ ചിത്രരചനയും അല്ലെങ്കിൽ മറ്റുള്ള കലകളും വരക്കാനും കുറിക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് ഓരോ അവരുടെ കൈ അവരെ മനസ്സിനനുസരിച്ച് നീങ്ങും അത് മാത്രമല്ല അവർക്ക് ഒരു ചിത്രം വരക്കുമ്പോൾ അവര് എന്ത് ആ ഒര് ചിത്രത്തിനോടനുബന്ധിച്ച് എന്ത് നിറം നൽകണം അല്ലെങ്കിൽ എങ്ങനെ ആ ചിത്രം വരച്ച് കമ്പ്ലീറ്റാക്കാം അല്ലെങ്കില് ഒരു മലയും ഒരു കുന്നും അതിന് നടുക്ക് ഒരു സൂര്യനും വരക്ക ആ സൂര്യനെ മഞ്ഞക്കളറ് നൽകാം അല്ലെങ്കിൽ ഓറഞ്ച് കളറ് നൽകാം മലക്ക് പച്ചക്കളറ് നൽകാം എന്നിള്ളോര് ചിന്ത വരാണ്ടിരിക്കൽ ആ കുട്ടികൾ കുറച്ചും കൂടി വളരണം ആ ഒര് ആറ് വയസ്സെന്നുള്ള സമയം ആകുമ്പളേയ്ക്ക് തന്നെ കുട്ടികൾ എന്താണ് ഓരോ സാധനങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും ആ ഒര് സമയത്താണ് കുട്ടികളെ ഓരോ കലയും നമ്മള് പഠിപ്പിക്കേണ്ടത് കയ്യും കാലും മനസ്സും ഒക്കെ ഒരുപോലെ ചലിക്കാൻ പഠിച്ചാൽ മാത്രമേ നമക്ക് ചിത്രകലയെ അല്ലെങ്കിൽ മറ്റേത് കലയായാൽ തന്നെ കുട്ടികൾക്കത് അഭ്യസിക്കാൻ പറ്റുള്ളൂ പിന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കുടും ചില കുടുംബക്കാർ അല്ലെങ്കില് അച്ഛനും മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ചെറുപ്പം മുതലേ ഒര് രണ്ടാം രണ്ട് വയസ്സ് മുതല് മൂന്ന് വയസ്സ് മുതല് കുട്ടികളെ കലകളൊക്കെ പഠിപ്പിക്കണമെന്ന് പക്ഷെ അത് തികച്ചും വിഡ്ഢിത്തം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ കുട്ടികൾ രണ്ടും മൂന്നും വയസ്സിൽ അവര് ഒരിക്കലും തിരിച്ചറിയുന്നില്ല അവര് എന്താണ് ചെയ്യുന്നത് അല്ലെ എന്താണ് അവര് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം കുട്ടികൾ ചില സമയം അവർ അടിച്ച് ഏൽപ്പിക്കാണ് ഇന്ന കല പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ഇത് മാത്രമാണ് പഠിക്കണ്ടത് എന്നിള്ളത് അപ്പോൾ ചിത്രരചന പോലുള്ള കലകൾ എപ്പഴും കുട്ടികൾ ആരംഭിക്കാനുള്ള ശരിയായ വയസ്സ് എൻ്റഭിപ്രായത്തിൽ ഒരാറ് വയസ്സ് അല്ലേ അഞ്ച് വയസ്സിന് ശേഷം മാത്രമാണ് എന്നാൽ മാത്രമേ കുട്ടികൾക്കീ ആ ഒര് സമയം ആകുമ്പോളേയ്ക്ക് കുട്ടികൾക്ക് മാനസിക വികാസങ്ങളുണ്ടാവുകയും ശരീര വികാസങ്ങൾ ഉണ്ടാകും തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാവുകയും അതോടൂടി തന്നെ എല്ലാം തിരിച്ചറിയാനുള്ളൊരു പ്രായമാ പ്രായമായിട്ട് ആ ഒര് പ്രായം മുന്നോട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഒരിക്കലും നമ്മൾ കുട്ടികളുടെ ചിത്രരചന അല്ലെങ്കിൽ ചിത്രത്തിനോടുള്ള കഴിവ് ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അവരെന്ത് വരച്ചാലും നമ്മളാദ്യം തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകണം എന്നാൽ മാത്രമെ അവരെ ച കൈ കാ കൈകൾ പിന്നീടും മറ്റൊര് ചിത്രങ്ങൾ വരക്കാനും പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹനം ഇണ്ടാവൂ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ചിത്രം വരക്കാൻ ഉള്ളൊരു പ്രേരണയായിട്ട് മാറുകയുള്ളൂ അത്കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അത്ര അത്രയെക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രേ കുട്ടികളുടെ ചിത്രരചനാ മത്സരം നമുക്ക് ചിത്രരചന പോലുള്ള കഴിവുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ